ആളുകളുടെ ജീവിത ഗുണനിലവാരത്തെ വളരെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന ഒന്നാണ് കളികൾ കുട്ടിക്കാലം മുതൽ വിവിധ തരത്തിലുള്ള കളികൾ നമ്മളെല്ലാവരും ഏർപ്പെടാറുണ്ട് ഇത് ചെറുപ്പം മുതലേ നമ്മളിൽ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഉണ്ടാക്കുകയും ജയത്തോടൊപ്പം പരാജയങ്ങളെയും എങ്ങനെ നേരിടണം എന്ന് നമ്മളെ മനസ്സിലാക്കി മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ കളികളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ടെൻഷനും സ്ട്രെസും എല്ലാം അല്പ നേരത്തെങ്കിലും നമ്മൾ മറന്ന് കൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു ഇത് കൂടാതെ നമ്മളിൽ ആരോഗ്യവും അറിവിൽ ഒഴിവ് സമയം ആനന്ദകരമാക്കുന്നതിനും അതോടൊപ്പം ഒത്തിരി അറിവ് പ്രധാനം ചെയ്യുന്നതിനും എല്ലാം കളികൾ നമ്മളെ സഹായിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ പെട്ടന്നുള്ള അവസരങ്ങളിൽ ഇങ്ങനെ പെട്ടന്ന് തീരുമാനങ്ങളെടുക്കാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്തിലും കളികൾക്ക് വളരെ വലിയ പങ്കുണ്ട് ഇത് കൂടാതെ നമ്മുടെ ഉള്ളിൽ ഉള്ളിലുള്ള പല കഴിവുകളും പുറത്ത് വരുന്നത് ഇത്തരത്തിലുള്ള കളികളിലൂടെയാണ് ഇത് കൂടാതെ എങ്ങനെ സാമൂഹികമായി ജീവിക്കുമ്പോഴുള്ള ഷെയറിങ്ങ് കെയറിങ്ങ് അതുപോലുള്ള പല പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നതും തിരിച്ചറിയുന്നതിനും ഒക്കെ കളികൾ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതോടൊപ്പം ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം എന്നും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള തീരുമാനം എന്താണെന്നും ഒക്കെ മനസ്സിലാക്കാനും നമ്മുടെ ബുദ്ധി വളരുന്നതിനും നമ്മുടെ മെമ്മറി പവർ വളരുന്നതിനും എല്ലാം കളികൾ വളരെ നിർണ്ണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് അതുപോലെ ഒന്നു കൂടി ആളുകളുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നതിനും ഫ്രണ്ട്ഷിപ്പ് പോലുള്ള വളരെ വിലയേറിയ ബന്ധങ്ങൾ നമുക്കുണ്ടാകുന്നതിനും ഒക്കെ കളികൾ നമ്മളെ സഹായിക്കാറുണ്ട് അതു പോലെ ഒരു പ്രോബ്ലം വരുമ്പോൾ എങ്ങനെ ഒരു പ്രശ്നത്തെ സമീപിക്കണമെന്നും അതിനെ എങ്ങനെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ സോൾവ് ചെയ്യാമെന്നും എങ്ങനെ പരിഹരിക്കാമെന്നും എല്ലാം മനസ്സിലാക്കുന്നതിനായി കളികൾ നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റിവിറ്റിയും എങ്ങനെ ക്രിയാത്മകമായ രീതിയിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാമെന്നും എങ്ങനെ ഒരു പുതിയ രീതി കണ്ട് പിടിക്കാമെന്നും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി കളികൾ നമ്മളെ സഹായിക്കുന്നുണ്ട് നമുക്ക് വൈകാരികമായ ഒരു സ്ഥിരത കൊണ്ട് വരുന്നതിനും ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നതിനും നമ്മളെ കളികൾ സഹായിക്കുന്നുണ്ട് അതു പോലെ നമ്മളിൽ ഒരു കൂട്ടായ കൂട്ടായി എങ്ങനെ പ്രവർത്തിക്കാം ഒരു ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് എങ്ങനെ പ്രവർത്തിക്കാം എന്നുളളത് ടീമായി കളിക്കുന്ന പല ഗെയിമിലൂടെയും നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്തുന്നതിൽ കളികൾക്ക് വളരെ വലിയ പങ്കാണ് ഉള്ളത് ഒഴിവ് സമയം വളരെ ക്രിയാത്മകമായ രീതിയിൽ ഉപയോഗിക്കാം എങ്ങനെ ഉപയോഗിക്കാം എന്ന് കളികൾ നമ്മളെ പഠിപ്പിക്കുന്നു നമ്മുടെ ബുദ്ധിയുടെ വളർച്ചയെയും ബ്രെയിൻ ഫങ്ഷനെയും നമ്മുടെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു മൂഡ് മാറ്റുന്നതിനും എല്ലാം വളരെ അധികം സഹായിക്കുന്ന ഒന്നാണ് കളികൾ ഇതുപോലെ നമ്മുടെ എല്ലിൻ്റെ ബലം കൂട്ടുന്നതിനും മസിൽ സ്ട്രെങ്ത് കൂട്ടുന്നതിനും എല്ലാം വീഡിയോ ഗെയിംസ് പോലുള്ളതും അതു പോലെ ഇനി ഇപ്പോൾ നമ്മൾ നേരിട്ട് കളിക്കുന്നതായാലും എല്ലാം നമ്മളെ സഹായിക്കുന്നുണ്ട് ഇത്തരത്തിൽ കളികൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ് നമ്മൾ പലപ്പോഴും നിസ്സാരവൽക്കരിക്കുമെങ്കിലും ഇതിനും നമ്മുടെ ജീവിതത്തിൽ നിർണായകമായ പങ്കുണ്ട്